ഞാന് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് കാരണം നമ്മള് എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ് പിന്നെ ഓയിലി ഫുഡ് അങ്ങനെ കഴിക്കില്ല കാരണം വെറുതെ കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഓയിലി ഫുഡ് കംപ്ലീറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് രണ്ട് നേരം ചോറ് ഒരു നേരം ചപ്പാത്തി രണ്ട് നേരം ചോറെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചേ എടുക്കുകയുള്ളു പിന്നെ കുറെ വെജിറ്റബിൾസ് കഴിക്കാൻ തുടങ്ങി ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടുതൽ ഭക്ഷണത്തിൽ കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വെജിറ്റബിൾസൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കില് മോർ ബെറ്റർ പിന്നെ എന്തായാലും ഒരു ദിവസം ഒരു രണ്ട് ഏത്തക്ക കഴിക്കും നമ്മള് ഇവിടെ ഇവിടെ ഉണ്ടെങ്കില് ഇവിടെന്ന് വാങ്ങും പിന്നെ ഉണ്ടേൽ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് വാഴയുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഇല്ല ഇല്ലെങ്കിൽ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതില് മരുന്ന് കുറേ അടിക്കും അടിക്കുന്നതാണ് പക്ഷേ എന്നാലും ഏത്തപ്പഴം ഒരു ദിനചര്യ ആയിട്ട് രണ്ട് ഏത്തക്കാ ഞാൻ കഴിക്കാറുണ്ട് പിന്നെ മുട്ടേന്റെ മഞ്ഞ ഒഴിച്ച് വെള്ള കഴിക്കും പിന്നെ മീറ്റ് ചിക്കൻ കഴിക്കും ബാക്കി മീറ്റ്സൊന്നും കഴിക്കാറില്ല ഓയിലി കഴിക്കാ ഓയിൽ ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാറില്ല അതേപോലെത്തന്നെ മധുരമുള്ളതൊന്നും കഴിക്കാറില്ല ചൂടുവെള്ളം ഒത്തിരി കഴിക്കും വെള്ളം അതായത് ചൂട് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഒത്തിരി കുടിക്കും